ഫോട്ടോഗ്രഫിക്ക് ഇപ്പം എല്ലാ ഡിഗ്രി കോഴ്സുകളും ലോകത്ത് ഉടനീളം അവൈലബിൾ ആണ് ഇവർ ചെയ്യുന്നത് ഫോട്ടോഗ്രഫിയുടെ എല്ലാ വശങ്ങളും പഠിപ്പിക്കുകയും നമ്മുടെ ഫോട്ടോഗ്രഫി സ്റ്റൈൽ നേടി എടുക്കുകയും ചെയ്യുക എന്നതിനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ആണ് ഇത് ചെയ്യുന്നത് ഇതിനായി പല സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര അംഗികാരം ഉള്ള സെർട്ടിഫിക്കറ്റുകളും മറ്റും നൽകുന്നുണ്ട് ചിലതാണ് ഇമ്പാക്ട് ഫോട്ടോഗ്രഫി പ്രോഗ്രാം കേപ്പ് ടൗൺ എന്ന സ്ഥലത്തുള്ള ഒരു ഇമ്പാക്ട് ഫോട്ടോഗ്രാഫി കോഴ്സ് ഇവർ അതിനായിട്ടുള്ള എല്ലാം ക്യാമറയുടെ കാര്യങ്ങൾ മുതൽ എല്ലാം പഠിപ്പിക്കും അതേപോലെ സ്കൂൾ ഓഫ് ക്രീയേറ്റീവ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സ്കൂൾ നൽകുന്നത് പല മൂല്യവത്തായ കാര്യങ്ങളും നൽകുന്നുണ്ട് വൈൽഡ്ലൈഫ് ആൻഡ് ട്രാവൽ ഫോട്ടോഗ്രാഫി പ്രോഗ്രാം ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ വൈൽഡ്ലൈഫിലെയും വിനോദസഞ്ചാര സമയങ്ങളിലെയും ഉള്ള കാര്യങ്ങൾ പകർത്താം അതിനായിട്ടുള്ള കോമ്പോസിഷൻ തുടങ്ങി പല തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരു വാ വന്യജീവിയുടെ ചിത്രം പകർത്താം അതിനു വേണ്ട കാര്യങ്ങൾ അതിനു വേണ്ട എല്ലാ സാങ്കേതികമായും അല്ലാത്തതുമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പിന്നെ എട്ട് ആഴ്ച കൊണ്ടുള്ള ഓഷ്യൻ ബീച്ച് കൺസേർവേഷൻ ഇൻ കെനിയ കെന്യയിലുള്ള ഉള്ള ഒരു ബീച്ച് അതുപോലുള്ള അങ്ങനത്തെ സ്ഥലങ്ങൾ പകർത്തുവാനും അതിനെ പറ്റി പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഉള്ളത് ബ്യുറോ ഫോട്ടോഗ്രാഫി പ്രോഗ്രാം ഇതുപോലെ തന്നെ ആണ് ഫോട്ടോഗ്രാഫിയുടെ പല തലങ്ങളും പഠിപ്പിക്കുന്ന ഫോട്ടോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിനായിട്ടുള്ള കാര്യങ്ങൾ നേടി നൽകുവാനും അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു ഈ കോഴ്സുകളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് അന്താരാഷ്ട്ര അംഗീകാരം ഉണ്ട്